ആ കേൾക്കാം പറഞ്ഞോ ഇന്ന് എനിക്ക് രാവിലെ ഓഫിസിൽ പോകണമെന്ന് അറിയാവുന്നതല്ലായിരുന്നോ പിന്നെന്തായിരുന്നു ഫുഡിനു ബുക്ക് ചെയ്തത് ഇന്നെന്തായിരുന്നു ബുക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത് മെനുവിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അല്ല സാധാരണ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിന് കുറച്ച് വായിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണമല്ലോ ഉണ്ടാക്കുന്നത് ഈ മുട്ടക്കറി ഇയാള് മൊ മുട്ടക്കറി ഇയാള് ഇയാള് കഴിച്ച് നോക്കിയിട്ടായിരുന്നോ ഓ ഉണ്ടാക്കി എല്ലാവർക്കും വെച്ചിരുന്നത് അതില് നിങ്ങളൊന്ന് കഴിച്ച് നോക്കിയിരുന്നെങ്കില് അതില് കുറച്ച് എങ്കിലും നിങ്ങള് ഒരു ഒരു തുള്ളി എങ്കിലും എടുത്ത് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് മനസിലാവുമായിരുന്ന് അതിനകത്ത് കുറച്ചെങ്കിലും ഉപ്പും എരിവും കൂടിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നതല്ലേ ഇന്നീ വീട്ടില് ഇവിടെ ഇത്രെയും പ്രായമുള്ളവരും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ എരിവ് കുറച്ചേ ഉണ്ടാക്കാവു എന്നുള്ളത് എന്നെ മാത്രം സംബന്ധിച്ചായിരുന്നേൽ എനിക്ക് കുഴപ്പം ഇല്ലായിരുന്നു ഉച്ചക്കത്തേക്ക് നിങ്ങൾ എന്താണ് ഉണ്ടാക്കിയേക്കുന്നത് ഊണിന് എന്താണ് കറിയെന്താണ് അതിന് ഇനി മുളക് കൂടുതലാണോ അതിനും കറക്ടായിട്ട് ആരെയെങ്കിലും കാണിച്ചിട്ട് വേണം ആ അച്ചാച്ചനും മമ്മിക്കും കൊടുക്കാനായിട്ട് അതായത് പ്രായമുള്ളവർക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട് അവർക്ക് ഫുഡ് എരിവൊട്ടും കൂട്ടാനായിട്ട് പറ്റത്തില്ല ഓക്കെ ആ വേറെ എന്താ ഫിഷ് കറിയല്ലാതെ ഉള്ളത് വേറെ എന്താ ഉള്ളത് അതായത് വെജിറ്റബ്ളായിട്ടെന്താ ഉണ്ടാക്കിയേക്കുന്നത് പച്ചക്കറി എന്താ തോരനും മെഴുക്കുവരട്ടിയോ വല്ലതും ഉണ്ടോ കാബ്ബേജ് അമ്മക്ക് കൊടുക്കരുത് അമ്മക്ക് പ്രഷറുള്ളത് കൊണ്ട് കൊടുക്കരുത് പിന്നെ ആ ഓക്കെ പിന്നെ ഇതിനെല്ലാം ഉപ്പും കാര്യങ്ങളുമെല്ലാം നോക്കിയതാണോ ഉപ്പൊന്നിനും കുറഞ്ഞ ഉപ്പ് അമ്മക്കൊണ്ടാക്കുന്നത് സെപ്പറേറ്റ് ഉപ്പ് ഇടാവുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെയാണോ ചെയ്തേക്കുന്നത് കറിയുണ്ടാക്കി കഴിഞ്ഞിട്ട് ഉപ്പും കാര്യങ്ങളുമെല്ലാം ഇടാവുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പേരന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഓക്കെ പക്ഷെ രാവിലത്തെ ഫുഡ്ഡ് കാര്യങ്ങള് ഇനിയും ഇങ്ങനെ ചെയ്താല് ശെരിയാവാത്തില്ല അതെന്താന്ന് വെച്ചാൽ എത്രയും വേഗം താങ്കൾ ചെയ്യേണ്ടതാണ് കാരണം ഇപ്പം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇത് അത് രാവിലത്തെ ഫുഡ്ഡ് കറക്റ്റായിട്ട് കാരണം അവർക്ക് ഒമ്പത് മണി ഒൻപത് മണിക്ക് മുന്നേ അവർക്ക് രണ്ട് പേർക്കും മെഡിസിൻസ് കഴിക്കേണ്ടതാണ് അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്നത് അപ്പം രാവിലത്തെ ബ്രെക്ഫാസ്റ്റ് കാര്യങ്ങള് കറക്റ്റായിട്ട് തന്നെ അവർക്കൊൻമ്പത് മണിക്ക് മുന്നേ എത്തിക്കണം അതും ഉപ്പും എരിവും വേറൊന്നും പറയുന്നില്ല ഉപ്പും എരിവും അത്യാവശ്യം വായ്ക്കകത്ത് വെയ്ക്കാൻ പറ്റുന്ന രീതിയിലുണ്ടാക്കി അവർക്ക് കൊടുത്തിരിക്കണം രാവിലെ അതുപോലെ എനിക്ക് ജോലിക്കും പോകേണ്ടതാണ് ഇനിയിപ്പം ഡിന്നറിന് വേണ്ടിയുള്ളത് എന്തേലും ആ കുക്ക് ചെയ്യാനുണ്ടോ പാരെൻറ്റ്സിനുള്ളത് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കുക ബാക്കി ഉള്ളവർക്കും ആ ഒരു രീതിയില് തന്നെ അവർക്കുള്ളത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുവേണം ബാക്കി എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഓക്കെ ശരി എന്നാൽ